മലയാള ഭാഷ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും എന്തൊക്കെ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ശ്രമം നടക്കുന്നില്ല കൂടുതലും ആൾക്കാർ അതായത് മലയാളം സംസാ സംസാരിക്കാൻ ഭയങ്കര മടി കാണിക്കുന്ന ഒരു അവസ്ഥയാണിപ്പോൾ നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാതൃഭാഷയാണ് നമ്മുടെ അതായത് നമ്മൾ അറിയാതെ തന്നെ അതായത് പഠിച്ചുവരുന്ന ഒരു ഭാഷയാണ് ഇപ്പം എഴുതാനല്ലെങ്കിലും പറയാനും നമ്മൾ അത് അതിനനുസരിച്ച് പ്രവർത്തിക്കാനും നമ്മൾ അതായത് നമ്മുടെ വീട്ടുകാരെയും അമ്മേൻ്റെയും അവരടുത്തുനിന്നൊക്കെ പഠിച്ചുവന്നൊരു ഭാഷയാണ് മലയാളഭാഷ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് മറ്റ് അന്യ ഭാഷകളൊക്കെ പിന്നെ വന്നിട്ടുള്ളൂ ആദ്യം നമ്മുടെ മെയിൻ നമുക്ക് മലയാളഭാഷ തന്നെയാണ് അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് നാല് ആൾ നിൽക്കുമ്പം ആൾക്കാർ കൂടുതലും ഇംഗ്ലീഷ് ഒക്കെ പറയാനാണ് ശ്രമിക്കുന്നത് ഇംഗ്ലീഷ് ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് പോവുക പിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ കുട്ടികളെ ചേർക്കുക മലയാളം മീഡിയത്തിൽ കുട്ടികളെ ചേർക്കാണ്ടിരിക്കുക അങ്ങനെയുള്ള അങ്ങനെയുള്ള പല പല പ്രവൃത്തികളും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം നമ്മുടെ മലയാളത്തിൽ തന്നെ സംസാരിക്കുക ഇപ്പം ഏഷ്യനെറ്റിൽ തന്നെ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളം അതായത് മലയാളഭാഷേനെ ഒന്ന് കൂടെ എല്ലാവരിലും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നൊരു ഷോ ആണ് കാരണം അതിൽ ഇങ്ങനെ പറയും മലയാളം മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ ഇംഗ്ലീഷ് സംസാരിക്കാൻ പാടില്ല ആ നിങ്ങൾ ഡെയ്ലി സം ഇങ്ങനെ സംസാരിക്കുന്നത് അത് ഫുൾ മലയാളത്തിൽ തന്നെ ആയിരിക്കണം ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ ബിഗ് ബോസ്സിലൊക്കെ പറയുന്നുണ്ട് പിന്നെ അതേ പോലെ പരിപാടികളൊക്കെ ഉണ്ട് അതായത് ടി വിയിലൊക്കെ പക്ഷേ അങ്ങനെയുള്ള പരിപാടികൾ ആരും കാണില്ല അതാണ് മെയിൻ പ്രശ്നം എല്ലാവരും കാണണം കണ്ടിട്ടുണ്ടെങ്കിലേ നമുക്ക് അതിനോട് ഒരു താൽപര്യം ഒക്കെ തോന്നുള്ളൂ അല്ലാണ്ട് നമ്മളിങ്ങനെ മലയാളഭാഷേനെ ഇങ്ങനെ ഒഴിവാക്കാൻ പാടില്ല ഒരിക്കലും നമ്മൾ എപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ പോയാലും ഒരു മലയാളി ഉണ്ടാവും പക്ഷേ നമ്മൾ ഇപ്പം എല്ലാവരും മല അതായത് ഇംഗ്ലീഷ് ആണ് കൂടുതലും സംസാരിക്കാൻ ശ്രമിക്കുന്നത് ഹിന്ദി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തോ വലിയ സംഭവം അങ്ങനത്തെ ആ ഒരു മൈൻഡിലാണ് ഇപ്പം എല്ലാവരും ആ ഇരിക്കുന്നത് അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മൾ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല നമ്മുടെ നമ്മുടെ മാതൃഭാഷയെ നമ്മളൊരിക്കലും തള്ളി കളയരുത് മാക്സിമം നമ്മൾ അതിൽ സംസാരിക്കാൻ ശ്രമിക്കുക ബാക്കിയൊക്കെ ഓക്കേ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പം നമ്മൾ പഠിക്കേണ്ട സമയത്ത് മാത്രം നമ്മൾ അങ്ങനെ സംസാരിക്കുക അത് നമ്മൾ സംസാരിക്കും അതായത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ നമ്മൾ മലയാളത്തിൽ മാത്രം കം കമ്മ്യൂണിക്കേഷൻ നടത്തുക